ഞാനും എൻ്റെ കുടുംബക്കാരുമായി എൻ്റെ ചിന്തകൾ പങ്ക് വയ്ക്കുന്നത് അടുക്കളയിൽ തന്നെയാണ് അവര് ഞാൻ പാകം പാചകം ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരെയും ഞാൻ ഉൾപ്പെടുത്താറുണ്ട് മാത്രമല്ല എൻ്റെ കുടുംബക്കാരുമായി എൽ മാസത്തിലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങൾ ചേരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒര് എൻ്റെ വീട്ടിൽ ഒത്ത് ചേരും അതിന് ആ ദിവസം എല്ലാവർക്കും ഇഷ്ട്ടപെട്ട ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കും എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ഫുള്ളും പിന്നെ വെജിറ്റബിൾ ഫുഡ് ഉണ്ടാക്കും നോൺ വെജിറ്റബിൾ ഉണ്ടാക്കും വിവിധ തരത്തിലുള്ള പായസങ്ങള് പിന്നെ മധുര പലഹാരങ്ങള് അങ്ങനെ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം പങ്ക് വെച്ച് കഴിക്കും അതിന് ശേഷം ഞങ്ങൾ ചെറിയ ഒരു യാത്ര പോകും അടുത്തുള്ള ബീച്ചിലോ അമ്പലങ്ങളിലോ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി അന്ന് തന്നെ തിരിച്ച് വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുക അവിടെ പോയി കുട്ടികൾ എല്ലാം മതിയാവോളം കളിച്ച് എല്ലാ കുട്ടികളും തമ്മിൽ ഒരു കണക്ഷൻ വരുത്തുന്നതിന് വേണ്ടിയും എല്ലാവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയും എല്ലാവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുന്നതിന് വേണ്ടിയും ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നത് പതിവുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കുടുംബക്കാരുമായി ഇഷ്ടംപോലെ സമയം ചിലവഴിക്കുക മാത്രമല്ല എല്ലാവർക്കും എല്ലാവരുടെ പ്രശ്നങ്ങളും മനസിലാക്കാനും എല്ലാവരുടെ സന്തോഷങ്ങളും എല്ലാവർക്കും അറിയുന്നതിനും ഉള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങളുടെ കൂടി കാഴ്ചയും ഈ ഒരു യാത്രയും ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള ഭക്ഷണവും എല്ലാം